എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഞാൻ ബീഫ് പന്നി അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല ആട് അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല ചിക്കനാണ് കൂടുതലും കഴിക്കാറ് അത്കൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള ഫുഡ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഏത് കടയില് പോയിട്ടുണ്ടെങ്കിലും ഞാന് വേറെന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ച് പോവുന്നത് അതായത് പൊറോട്ട കഴിക്കണമെന്നോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷെ നമ്മള് അവിടെ എത്തുമ്പം പിന്നെ എങ്ങനെ പോയാലും അയാളോട് എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാള് ചിക്കൻ ബിരിയാണി അങ്ങനെ ബിരിയാണി പൊറോട്ട ചപ്പാത്തി അങ്ങനൊക്കെ പറയും പക്ഷെ ലാസ്റ്റ് ഞാൻ മേടിക്കുന്ന സാധനം ചിക്കൻ ബിരിയാണി ആയിരിക്കും അതാണ് എപ്പൊഴും നടക്കാറുള്ളൊരു സംഭവമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്കെവിടുന്നാണ് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ കോഴിക്കോട് നമുക്കിവിടെ പിന്നെ മെയിനായിട്ട് ചിക്കൻ മാത്രമുള്ള സ്ഥലമുണ്ട് അതായത് ചിക്കൻ ബിരിയാണി അതായത് ബിരിയാണികള് മാത്രമുള്ളൊരു സ്പോട്ടുണ്ട് അവിടെപ്പോയിട്ടാണ് കഴിക്കാറ് അവിടുത്തെ ബിരിയാണീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അതായത് നല്ല മസാല എനിക്ക് ന പൊതുവേ നല്ല മസാലയൊക്കെ ഉള്ള ബിരിയാണിയാണ് ഇഷ്ടം മസാലയൊന്നും ഇല്ലാണ്ട് ഡ്രൈ ചിക്കൻ ചിക്കനും നെയ്ച്ചോറും മാത്രായിട്ടുള്ള അങ്ങനത്തെ ബിരിയാണി ഇഷ്ടമല്ല നല്ല മസാലയൊക്കെ വന്നിട്ട് നല്ല ചള്ളാസും അങ്ങനെയൊക്കെ ഉള്ള ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് എനിക്കവിടെ കിട്ടാറ് അതുകൊണ്ട് എനിക്കത് അവിടെ പോയിട്ട് കഴിക്കാൻ ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം